ഒരുനിമിഷം എനിക്ക് എന്നുണ്ടല്ലോ ഈ യു പി ഐ ഫോൺ പേ ജീ പേ പേ ടി എം ഒന്നും എനിക്ക് കണക്റ്റാകുന്നില്ല എൻ്റെ ഫോണുമായിട്ട് ഇപ്പോൾ വർക്കിങ്ങല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ബാങ്ക് സർവർ ഡൗണായെന്നാണ് പറയുന്നത് ഇങ്ങനെ പല ലൊക്കേഷനിൽ വരുമ്പോഴും ഇങ്ങനെ ഉള്ളത് ബുദ്ധിമുട്ടെനിക്ക് വരാറുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഉള്ള പണം ഉപയോഗിച്ച് നിനക്ക് നല്കിയാൽ മതിയോയെന്ന് എനിക്കൊന്ന് അത് അത് മതിയോ എന്ന് ഒന്ന് ചോദിക്കാനായിരുന്നു ഞാനിപ്പം കോണ്ടാക്റ്റ് ചെയ്തത് ഒന്നതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ എനിക്ക് പൈസ ഇപ്പം അല്ലാതെ തരാൻ ഒരു നിവൃത്തി ഇല്ല ഇതെല്ലാം ഡൗണായിട്ട് കിടക്കുകയാണ് ഞാൻ കുറേ ട്രൈ ചെയ്തു ഇതുവരെ പറ്റിയിട്ടില്ല പണം കയ്യിൽ തന്നാൽ മതിയോ അതോ നിങ്ങളുടെ ഇങ്ങനെ പേ ടി എം യൂ പി ഐ വഴി തന്നെ ചെയ്യണോ അക്കൗണ്ടിലാണ് ചെയ്യണോ എൻ്റെ കയ്യിലും പണമുണ്ട് ഇതിനകത്ത് പേ ടി എം ഒന്നും ശരിയാകുന്നില്ല എനിക്ക് അയക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട് സിം മണി ട്രാൻസ്ഫറാകുന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് ബാങ്ക് സർവർ ഡൗണായെന്നാണ് പറയുന്നത് എസ് ബി ഐ അക്കൌണ്ട് ആയതുകൊണ്ടായിരിക്കാം പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഇത് വരുന്നുണ്ട് എന്ത് ചെയ്യാനാണെന്ന് പറ